ആ ഇത് ആർ ബി ആർ ബി ബാങ്ക് മാനേജർ ആണ് സംസാരിക്കുന്നത് ഇതാരാണ് ആ ഓ ആ എതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടോ ഓക്കെ ഓക്കെ താ താങ്കൾക്ക് എന്തിനാണ് ഇപ്പോൾ അക്കൗണ്ടിൻറെ ആവശ്യം വന്നിരിക്കുന്നത് ഒന്ന് വിശദീകരിക്കാമോ ഓ താങ്കൾക്ക് താങ്കൾക്ക് നമ്മുടെ ബാങ്കിനെ നൂറ് ശതമാനം വിശ്വസിക്കാം ഇവിടെ എത്ര രൂപ ഇട്ടാലും നൂറ് ശതമാനം സേഫ് ആയിട്ട് സേഫ് ആയിട്ട് കിടക്കും ഇത് എൻ്റെ എൻ്റെ വാക്കാണ് ഞങ്ങളുടെ ബാങ്ക് തരുന്ന ഒരു പോളിസി ആണിത് താങ്കൾ താങ്കൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യം ഇല്ല താങ്കൾ എത്ര രൂപയാണ് ഇവിടെ നമ്മുടെ ബാങ്കിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് നൂറ് ശതമാനം ധൈര്യമായിട്ട് എൻ്റെ ബാങ്കിലേക്ക് നിക്ഷേപിക്കാം ഞങ്ങളുടെ ബാങ്ക് നൂറ് ശതമാനം സേഫ് ആണ് താങ്കളുടെ ക്യാഷ് ഇവിടെ നിന്ന് ആരും കൊണ്ട് പോകില്ല താങ്കളുടെയും താങ്കളുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരുടെ ഈ ക്യാഷ് ഇപ്പോൾ പ്രസി താങ്കൾ താങ്കൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് വരുമ്പോൾ ഇത് ആരുടെയൊക്കെ പണമാണെന്നും അതിന് തെളിയിക്കാനുള്ള രേഖകളും അതിനനുബന്ധ രേഖകളും അവരെ അവരുടെ തിരിച്ചറിയൽ കാർഡുകളും അവരുടെ അവരുടെ കൈയൊപ്പ് അടങ്ങുന്ന നോട്ടറി സർട്ടിഫിക്കറ്റും ഇതൊക്കെ താങ്കൾ കൊണ്ടുവരണം ഇന്നൊക്കെ ഇത് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് ഈ പണം സ്വീകരിക്കാൻ സാധിക്കൂ കൃത്യമായ രേഖകളിലൂടെ മാത്രമേ ഞങ്ങൾ പൈസ സ്വീകരിക്കൂ താങ്കൾ പറയൂ താങ്കൾ സ താങ്കൾ താങ്കൾ താങ്കൾ വരണം താങ്കൾ വരൂവേം ചെയ്യണം ആ പറയൂ പറയൂ ബാങ്ക് തിങ്കൾ മുതൽ വെള്ളി വരെ തുറന്ന് പ്രവർത്തിക്കും രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണി വരെ ഓ വൈകുന്നേരം അഞ്ച് മണി വരെ ഉണ്ട് പറ്റും താങ്കൾ വരുമ്പോൾ ഇതിൻ്റെ രേഖകൾ എല്ലാം സബ്മിറ്റ് ചെയ്യണം രേഖകൾ കൊണ്ടുവരണം ഈ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ലക്ഷം ആ ലഭിക്കും ഇപ്പോൾ ഞാൻ പറയാം ഒരു ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപയാണ് പലിശ അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആവുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ താങ്കൾക്ക് ലഭിക്കും താങ്കളുടെ ഈ എല്ലാ ഇതും ആ കൊടുക്കാം അത് തിരിച്ച് കൊടുക്കാം അത് അത് നിങ്ങളാണ് എടുക്കുന്നത് ഞങ്ങൾ പലിശ തരുന്നത് മാത്രം ചെയ്യുന്നു ഈ പൈസ താങ്കൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ടൈം നിങ്ങൾ നിങ്ങളാണ് നിശ്ചയിക്കുന്നത് ഇപ്പം രണ്ട് വർഷം ആവാം മൂന്ന് വർഷം ആവാം ആ ഓരോ വർഷം വർഷം ആവുമ്പോഴാണ് ഇൻട്രസ്റ്റും ക്യാഷ് ഡബിളും ആവുന്നത് അങ്ങനെയാണ് ഇപ്പം ഇപ്പം മാസം ഇരുപത്തയ്യായിരം രൂപയാണ് പലിശ കിട്ടുന്നത് നിങ്ങൾ നിങ്ങൾ ഈ പലിശ എടുത്തില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും അത് മൊ മൊ മുതലിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കയറ്റം അങ്ങനെ കയറി കയറി കയറി അത് പോകും ഓക്കെ ഓക്കെ